ഈയൊരു കാലത്ത് കുറേ കർഷകർ ഇപ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് അതായത് പശുക്കളെ സംരക്ഷിക്കുന്ന കുറേ പേരുണ്ട് ഈ പാലിനും അതിൻ്റെ ചാണകത്തിനും വേണ്ടി പശു ആട് എരുമ അങ്ങനെ ക്ഷീര കർഷകരുണ്ട് അത് അതല്ലാതെ പിന്നെ ഇറച്ചിക്ക് വേണ്ടി പോത്തിനെ പരിപാലിക്കുന്നവരുണ്ട് അതേപോലെതന്നെ മുട്ടക്കും ഇറച്ചിക്കും വേണ്ടി കോഴി താറാവ് അങ്ങനെയുള്ള ജീവികളെ പരിപാലിക്കുന്നവരുണ്ട് ഇവയൊക്കെ കാരണം ഇവയ്ക്ക് പല സമയത്തും പല രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതിവായിട്ട് നാട്ടിലെ വെറ്റിനറി ഡോക്ടർ മൃഗ ഡോക്ടറെക്കൊണ്ട് നമ്മൾ പരിശോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു മിനിമം മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ എല്ലാ വർഷങ്ങളിൽ ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ നല്ലൊരു മുൻകരുതലാണ് ഇപ്പോൾ മൃഗങ്ങൾക്ക് ബാധിക്കുന്ന കുറേ അസുഖങ്ങൾ മനുഷ്യരിലേക്കും പടരാൻ സാധ്യത ഉണ്ട് അതിലൊരു എക്സാമ്പിളാണ് പക്ഷിപ്പനി അതുപോലെ തന്നെ ഈ പേവിഷ ബാധയൊക്കെ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതിനൊക്കെ നമ്മൾ എന്തായാലും മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അതാവശ്യമാണ്